പതിനഞ്ചാമത്തെ ജന്മദിനത്തിൽ എന്റെക്ക് കുറച്ച് പൈസ തന്നു ഒരു ആയിരം രൂപയോളം വരും ആ പൈസകൊണ്ട് ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങുകയായിരുന്നു ചെയ്തത് വളരെ മനോഹരമായൊരു ഷർട്ട് ഞാൻ വാങ്ങി അതെന്റെ വലിയച്ഛൻ കാണിക്കുകയും ചെയ്തു അതിൽ ആളും സന്തുഷ്ടനായി വേറൊന്നുമല്ല കൊച്ചുമകൻ എന്ന നിലയിൽ എനിക്ക് ആ സമ്മാനം അദ്ദേഹം നല്കാൻ സാധിച്ചു അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തുഷ്ടനാകുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലുത് അതെനിക്ക് ഏറ്റവും ഒരുപാട് വില പ് വിലയേറിയ ഒരു സമ്മാനമായിരുന്നത് കാരണം ഇപ്പോൾ എന്റെ വലിയച്ഛൻ ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ അത് എത്ര കളർ മങ്ങിയിട്ടും എടുത്തിട്ട് ഞാൻ അതിപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരിതാണ് ഞാനത് വാങ്ങിയത് എന്റെ വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്നാണ് വളരെ മനോഹരമായ ഒരു ഷർട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിലേറ്റവും നല്ലൊരു ഗിഫ്റ്റാണത് അതുകൊണ്ട് തന്നെ ഞാനതിപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നു എന്റെ അലമാരയിൽ എല്ലാ വർഷത്തേയും ബർത്ത് ഡേകളിൽ എന്റെ ജന്മദിന സമയത്ത് ഞാനതെടുത്തു നോക്കാറുണ്ട്